കലക്കും കരകൗശലത്തിനും ഒരു നാടിന്റെ സ്വത്തവും അഭിമാനവും വഹിക്കാനാകുമോ തീർച്ചയായും വഹിക്കാനാവും കാരണം ഒരു നാടിന്റെ കല ആ നാടിന്റെ കഥ തന്നെയാണ് നാടൻ പാട്ടുകളിലൂടെ ഒക്കെ പറയുന്നത് ഒരു കഥയാണ് ഒരു സംഭവത്തെ കുറിച്ചാണ് അവിടെ അവർ പാടി നമ്മളെ മനസിലാക്കുന്നത് തുള്ളൽ പാട്ടുകൾ കഥകളി ഇതൊക്കെ ക്ഷേത്ര കലകളാണ് ഈ ക്ഷേത്ര കലകളിലൂടെ ഒക്കെ നമ്മൾ അറിയുന്നത് ഒരു നാടിന്റെ സംസ്ക്കാരമാണ് അതുപോലെ തന്നെ മാർഗം കളി ചവിട്ട്നാടകം ഇതൊക്കെ നമ്മൾക്ക് ഒരു സന്ദേശം തരുന്നുണ്ട് അത് ആ രീതീൽ അതിനെ ആസ്വദിക്കാൻ സാധിക്കുന്നവർക്ക് മാത്രം പിന്നെ കരകൗശലം ഇപ്പം കേരളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം നമ്മുടെ ഇവിടെ കരകൗശല വസ്തുക്കളുണ്ടാക്കുന്നത് ഈ കേരളത്തിലെ ലഭ്യമായിട്ടുള്ള വസ്തുക്കൾ വെച്ചാണ് ഉപയോഗം ഉണ്ടാക്കുന്നത് അതുണ്ടാക്കുന്നത് ഇവിടെയുള്ള ആളുകളുടെ ആ നൈപുണ്യമാണ് അവരുടെ ആ കഴിവാണേൽ ഈ നമ്മുടെ ഇവിടെ നിന്ന് ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അത് ഉണ്ടാക്കുകാന്നുള്ളത് അവരുടെ കഴിവാണ് അപ്പം ഈ ആ ഒരു സൃഷ്ടിയിൽ നിന്ന് തന്നെ നമ്മുടെ ഈ നാട്ടിലുള്ള ആളുകളുടെ കഴിവ് നാടിന്റെ കഥകളെ ഒക്കെ നമുക്ക് മനസിലാക്കാൻ സാധിക്കും പക്ഷേ ഇതൊക്കെ വെറുതെ ഇങ്ങനെ നോക്കിയും കണ്ടും പോവുന്നതല്ല അതിനെ മനസിലാക്കി ആ അറിഞ്ഞ് കാണുന്നവർക്ക് വെറുതെ കണ്ടാൽപ്പോര കണ്ണുണ്ടായിട്ടും കാണുന്ന കണ്ടുൺ കണ്ണു മാത്രമുണ്ടായാൽപ്പോര അതിനെ ഗ്രഹിക്കാനുള്ള ഒരു കഴിവും കൂടെ വേണം നമ്മുടെ വീക്ഷണ കോണുകളാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസിലാക്കാൻ സാധിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും കലക്കും കരകൗശലത്തിനും ഒരു നാടിൻ്റെ അഭിമാനോം സ്വത്തുവയെക്കെ വഹിക്കാനാകും